ചേട്ടാ ഒരു വീട് വേണം പട്ടം നഗറിൽ ആ നമുക്ക് ഒരു രണ്ടു ഫ്ലോർ ഒരു ത്രീ ബി എച്ച് കെ വീടാണ് വേണ്ടത് ആ നമുക്ക് എങ്ങനെയായാലും കുറച്ച് ടൗൺ ഏരിയയിൽ കിട്ടിയാൽ ഉളളിലേക്ക് നല്ലോണം ആവാനും പാടില്ലല്ലോ ടൗൺ ഏരിയയിൽ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ആ അങ്ങനെ നമുക്കങ്ങനെ ആ അങ്ങനൊരു നമുക്ക് വീടായിട്ട് വേണം നമുക്ക് ഫാമിലി കുറച്ച് എല്ലാരും ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും വീടാണ് താല്പര്യം ഇത് എങ്ങനെയാണ് ടൗൺ ഏരിയയില് ഒക്കെ എന്താ റേറ്റ് വരുന്നത് ബഡ്ജറ്റ് ഒക്കെ വാടക റെന്റ് അല്ലേ ആ നമുക്കിത് വാങ്ങാനാണെങ്കിലോ റെന്റ് അല്ലാതെ വാങ്ങാൻ അല്ല വാങ്ങാൻ റെന്റ് അല്ലാതെ വാങ്ങാൻ പറ്റില്ലേ ആ ഓ ഇനി കുറയില്ലേ ആ ഓക്കെ ഇത് എവിടെയാണ് ഇത് ഏത് സ്ഥലത്തായിട്ടാണ് വരണത് വീടുകളൊക്കെ അപ്പോൾ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് ആ ആ കുഴപ്പമൊന്നുമില്ല നമുക്ക് പാലക്കാട് ടൗൺ ഏരിയ അവിടെയൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉള്ളതാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് രണ്ട് ആ നമുക്ക് രണ്ടു നില വീട്ടില് ഒരു മൂന്ന് നാല് ബെഡ്റൂംസ് ഉള്ള അതേപോലെ വലിയൊരു ഹാളും ആ ആ അങ്ങനെ അറ്റാച്ചഡ് ബാത്റൂംസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു വീട് നമുക്കിപ്പോൾ ഉള്ളതിനെക്കാട്ടിയും ഒരു മെച്ചപ്പെട്ട ഒരു വീടാണ് നമുക്ക് വേണ്ടത് ഉം അപ്പോൾ അവിടെ നമുക്കിപ്പോൾ പറഞ്ഞപോലെ ഇപ്പോൾ റെന്റിനാണെങ്കിൽ നമ്മൾക്കൊരു നാലായിരം അയ്യായിരം ഒക്കെ ആണെങ്കിൽ ഓക്കെ ആറായിരം ഒന്നും നമ്മളെക്കൊണ്ട് താങ്ങില്ല ആ ആ ആ നമുക്ക് നോക്കാം എന്തായാലും ആ നമുക്ക് ആ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ നിന്നിറങ്ങി ഒരഞ്ച് കിലോമീറ്ററിനുള്ളിലൊക്കെ ടൗൺ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓ അപ്പോൾ കുഴപ്പമില്ല നമുക്ക് അങ്ങനെയാണെങ്കിൽ നോക്കാം ആ പിന്നെ വീടെങ്ങനെയാണ് നല്ല വൃത്തിയുള്ള വീടല്ലേ ആ നല്ല വീടാണല്ലേ ആ നമുക്കങ്ങനെ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ അത് അത് നമുക്ക് നോക്കാം പക്ഷെ ഞാൻ വേണമെങ്കിൽ എന്നാൽ ഇത് ഉറപ്പിക്കണതിന് മുൻപ് ഒന്ന് അടുത്താഴ്ച ഒന്ന് കാണട്ടെ വീടൊക്കെ ഓ ഓ ഓക്കേ ഓക്കേ അപ്പോൾ നമുക്ക് ഞാൻ വിളിക്കാം അവിടെ വന്നിട്ട് ആ ആ ശരി അപ്പോൾ